ചേച്ചി ചേച്ചിയുടെ സന്ന ചേച്ചി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്നു പറഞ്ഞു തരാമോ ഞാൻ ജാസിൻ്റെ ആര ആറാട്ടുവഴി ജാസിൻ്റെ ഗ്രൂ കീഴിൽ പ്രവർത്തിക്കുന്ന ദീപം എസ് എച് എസിലെ പ്രസ് സെക്രട്ടറിയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഗ്രൂപ്പ് ഫോം ചെയ്തത് ഞങ്ങളാദ്യം ഇരുപത് പേരുണ്ടായിരുന്നു ഇപ്പോൾ അതിനകത്തു രണ്ടു മൂന്നു പേരു പോയി ഇപ്പോൾ പതിനഞ്ച് അഞ്ച് അംഗങ്ങൾ പോയി പതിനഞ്ചു അംഗങ്ങളുണ്ട് ഞങ്ങൾ ആഴ്ചയിൽ വീടുകളിലാണ് ഗ്രൂപ്പ് കൂടാറുള്ളത് ആ നിക്ഷേപം വെയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിനകത്ത് ലോണായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ എല്ലാവരും ആഴ്ചയിൽ കൂടുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ വന്ന് ഒരേ വീടുകളിൽ കൂടുമ്പോൾ അവരവരുടെ ദുഃഖങ്ങളുമൊക്കെ പറഞ്ഞു ഞങ്ങൾ ഗ്രൂപ്പ് കൂടി ചർച്ചകൾ ചെയ്യാറുണ്ട് പിന്നെ ചർച്ചകളൊക്കെ നടത്തി ഞങ്ങൾ സമ്പ നിക്ഷേപം രൂപി സ്വരുക്കൂട്ടി അതു ജാസിൻ്റെ ഓഫീസിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് പിന്നെ അതിൽ നിന്നു ഞങ്ങൾ ലോണാവശ്യമുള്ളവർക്ക് കൊടുക്കാറുണ്ട് കിട്ടുന്ന പലിശ ഒരുവ പലിശയാണ് ആ പലിശ ഞങ്ങൾ ലാഭം വീതിക്കാറുണ്ട് അത് അംഗങ്ങൾക്കു കിട്ടുമ്പോഴത്തേന് ഒരു സന്തോഷമാണ് പിന്നെ അതു കൂടാതെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നു ലോണൊക്കെ കിട്ടാറുണ്ട് പിന്നെ ജാസിൻ്റെ ഓഫീസിൽ അവിടെ നിന്നും ഞങ്ങൾക്കു ലോൺ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ ലഭിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ഗ്രൂ ആദ്യം ഞങ്ങൾ വാർഷികം നടത്തി അപ്പം എല്ലാ ഭാരവാഹികളൊക്കെ വിളിച്ചു ഞങ്ങൾ പുതിയ സാരിയൊക്കെ എടുത്തു ഞങ്ങൾ മത്സരങ്ങൾ വെച്ചു എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയാണ് വാർഷികം നല്ല രീതിയിൽ നടത്തിയത് ഗ്രൂപ്പിൽ വരാൻ എല്ലാവർക്കും സന്തോഷമാണ് ചെറിയ നിക്ഷേപത്തിലൂടെ ഞങ്ങൾ ഇപ്പം കൊറ കുഴപ്പമില്ലാതെ ഓരോരുത്തർക്കും നിക്ഷേപങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ ചടഞ്ഞു കൂടി ഇരിയ്ക്കാതെ ഇപ്പോൾ ആഴ്ചയിൽ വരുമ്പോൾ എല്ലാവരുമായിട്ടു കാണാനും അവരുടെ ദുഃഖങ്ങളും സുഖങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ടു സാധിക്കുന്നുണ്ട്